ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളതും ഇഷ്ടമുള്ളതുമായ ഒരു വിഷയമാണ് മലയാളം മലയാളത്തിൻ്റെ സമയം ആകുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു മലയാളവിഷയത്തിൽ എനിക്ക് ഏറെ മാർക്കുണ്ടായിരുന്നു ഏറെ ഇഷ്ടമുള്ളത് ആ വിഷയത്തിൽ പാഠഭാഗവും അതിലെ കവിതകളുമായിരുന്നു അത് വളരെ ഇഷ്ടമായിരുന്നു ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ മലയാള പുസ്തകത്തിലെ പുതിയൊരു പാഠമോ കവിതയോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കവിതയായാൽ ഏറെ സന്തോഷം ആദ്യം ടീച്ചർ കവിത അതി മനോഹരമായി ഈണത്തിലും താളത്തിലും പാടിത്തരും അത് കേട്ടിരിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു എന്നിട്ട് ടീച്ചർ ഓരോ ബെഞ്ചിനോടും ഓരോ ഈണത്തിലും താളത്തിലും പാടാൻ പറയും കുറച്ച് സമയം കുട്ടികൾ എല്ലാവരും പുതിയ ഈണം കണ്ടെത്താൻ തുടങ്ങും എന്നിട്ട് അത് ഓരോ സംഘമായി പാടാൻ തുടങ്ങും ചിലത് വളരെ മനോഹരമായിരിക്കും നല്ല ഈണവും താളവുമായിരിക്കും ചിലരുടേത് കേൾക്കുമ്പോൾ വളരെ തമാശയായി തോന്നും എന്നിട്ട് ടീച്ചർ അതിമനോഹരമായി പാടിയ ഒരു സംഘത്തെ വിളിച്ച് അഭിനന്ദിക്കും ആ ഒരു മലയാള ക്ലാസ്സിൽ സമയം പോകുന്നത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അറിയുകയേ ഇല്ല അത്ര മനോഹരമായിരുന്നു ആ ക്ലാസ് ഇതൊക്കെ കൊണ്ടാണ് ആ ക്ലാസ് മലയാളവിഷയം എനിക്ക് വളരെ ഇഷ്ടമുള്ളത് ആ മനോഹരമായ വിഷയം എടുക്കുന്ന ടീച്ചറും അതിമനോഹരമായിരുന്നു